ആ ആ അഞ്ജലി അഞ്ജലി അല്ലെ ആ ആ ചോറ് കഴിച്ചു ആ പോവാം അതെയോ അ അതെയോ നമുക്ക് പോവാമലോ ആ നമുക്ക് ഇവിടെ ഭീമയിൽ പോവാം കാസർകോട് ഭീമ നല്ല ഷോപ്പാണ് സ്ഥിരമായിട്ട് അവിടെ ആ പണിക്കൂലി കുറഞ്ഞ് നമ്മുടെ ഒരു പരിചയക്കാരൻ ഒരു പയ്യനുണ്ട് ആ പണിക്കൂലി കുറച്ചതാക്കി തരും ആ അറിയുന്ന അറിയുന്ന ആളുണ്ട് അ ആ ആ തുണി ഷോപ്പിൽ എവിടെ പോവാൻ കല്യാൺ സിൽക്സിൽ നല്ലതുണ്ട് അവിടെ എൻ്റെ അനുജത്തിയുണ്ട് നമുക്ക് അവിടെ പോവാം എങ്കിൽ അ ആ ആ ആ കല്യാൺ സിലിക്സിൽ ആ ആ പോയി നോക്കാം ആ ഫ്രീ ഉണ്ടാവും ഫ്രീ ഉണ്ടാവും എൻ്റെ അയൽവാസിയുണ്ട് എൻ്റെ അനുജത്തിയുണ്ട് അവിടെ ആ അ ഓക്കെ ആ പോയി നോക്കാം എനിക്ക് ഇപ്പോഴൊന്നും വാങ്ങാനില്ല ആ ഇടക്ക് ഒക്കെ വേണമെങ്കിൽ ഞാൻ വരാം കൂടെ അ കുഴപ്പമില്ല നല്ല ഞാൻ സ്ഥിരമായിട്ട് ഭീമയിൽ തന്നെ ഞങ്ങൾ പോയ്ക്കൊണ്ടിരിക്കുന്ന ആളാണ് ഉം ആ ആ ആ ആ ആ മാറ്റി വാങ്ങാലോ ആ ആ ആ ആ കിട്ടും കിട്ടും കിട്ടും ആ

ആ നമക്ക് പോവാം പോവാം അ അ അ ആ ആ ആ വരും വരും വരും എപ്പോഴാണ് വച്ചാൽ സമയം പറഞ്ഞാൽ മതി

ഉച്ചക്ക് കറി മുരിങ്ങയില തോരൻ പിന്നെ സാമ്പാർ ആ അച്ചാർ മുരിങ്ങ ഇല മുരിങ്ങ ഇല ആ വീട്ടിൽ വീട്ടിൽ വന്നാൽ ആ വീട്ടിലോട്ട് ഒന്ന് വന്നാൽ എടുത്ത് തരാം ആ ശരി ശരി